ഹലോ അമൽ ജ്യോതി ഗ്യാസ് ഏജൻസിയല്ലേ നിങ്ങളിപ്പോള് ആ നിങ്ങള് കൊണ്ടുവരുന്ന ഡെലിവറി ആ ഒരു സമയം നിങ്ങള് മാറ്റിയായിരുന്നല്ലോ അപ്പോഴൊരു ഉച്ചയ്ക്കൊരു പന്ത്രണ്ടര ഒരു മണിയാക്കിയില്ലേ അപ്പോള് ഞാൻ ജോലി സമയത്തായിരിക്കുന്ന സമയത്താണ് നിങ്ങള് കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരും തന്നെ ഉണ്ടാകാറില്ല അപ്പോള് ആ സമയത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കീ പൈസ ഏല്പ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഗ്യാസ് കുറ്റി അങ്ങോട്ട് എടുത്ത് തരുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോള് ഞങ്ങളിപ്പോള് അയൽക്കാരെ വച്ചാണീ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന അപ്പോള് ഞങ്ങള്ക്ക് ആ ഒരു സമയം ഞങ്ങളൊരു ഒമ്പത് മണിയോട് കൂടെ മാറ്റിത്തരുവാണെങ്കില് വളരെ ഉപകരമായിരുന്നപ്പോള് നിങ്ങളീ സമയം മാറ്റിയതുകൊണ്ട് ഞങ്ങള്ക്ക് വീണ്ടും ഈ ജോലിസ്ഥലത്ത് വന്ന് നില്ക്കേണ്ട അവസ്ഥ ഉണ്ടാകുവായിരുന്നെങ്കില് അയൽവ അയൽവക്കക്കാര് നമ്മളെ അതിനുവേണ്ടി സഹായത്തിന് തിരക്കണ്ട ഒരു പ്രശ്നത്തിലേക്കാണിപ്പോള് പോകുന്നത് അപ്പോള് അതൊന്ന് നിങ്ങള് ശ്രദ്ധിച്ചാല് കൊള്ളാമായിരുന്നു